കസ്റ്റമർ കെയർ അല്ലേ ഞാൻ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു എനിക്ക് ഒരു പ്രധാനപ്പെട്ട കോൾ ചെയ്യണമായിരുന്നു ഒരു പ്രീ പെയ്ഡ് കോൾ ചെയ്യണം അപ്പോൾ അതിനുള്ള അതിന് ആവശ്യമായ ബാലൻസ് അതിനകത്ത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്പർ ഒന്ന് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് അഞ്ച് നാല് രണ്ട് പൂജ്യം ആ ഈ നമ്പറിൽ എനിക്ക് ആ കോൾ ചെയ്യാനുള്ള ബാലൻസ് ഉണ്ടോ എന്ന് അറിയണമായിരുന്നു ആ കോൾ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ കട്ടായി പോകരുത് അതാണ് ഒന്ന് ചെക്ക് ചെയ്യുമോ അത് മെസ്സേജ് ആയിട്ട് വരുമോ അതോ

ഞാൻ നിലവിൽ റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് മുൻപ് കോൾ വിളിച്ചത് കൊണ്ട് അത് കഴിഞ്ഞോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അതാണ്

ഓക്കെ താങ്ക്യൂ